ഞാനിവിടെ നിന്ന് കൊല്ലത്തേക്കൊരു ക്യാബ് ബുക്ക് ചെയ്തിരുന്നു പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് ആ യാത്ര പറ്റില്ല എനിക്ക് വേറെയൊരു സ്ഥലത്ത് അടിയന്തരമായിട്ട് എത്തേണ്ടത് ഉള്ളതുകൊണ്ട് എനിക്ക് ആ യാത്ര റദ്ദാക്കണം അപ്പോൾ ഞാനത് റദ്ദാക്കി പക്ഷെ ഞാൻ നിങ്ങൾക്ക് തന്ന അഡ്വാൻസായിട്ട് ഞാനൊരു അഞ്ഞൂറ് രൂപ തന്നായിരുന്നു നിങ്ങൾക്ക് അപ്പം ഞാനിപ്പോൾ എന്തായാലും യാത്ര ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ആ പൈസ എനിക്ക് തിരിച്ചു വേണം എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കണത് അപ്പോൾ ആ പണം നിങ്ങൾക്ക് നിങ്ങളെനിക്ക് തിരിച്ചയക്കുമ്പോൾ നിങ്ങൾ എനിക്ക് നേരിട്ടായിട്ട് വാങ്ങാൻ പറ്റില്ല കാരണം എൻ്റെ ഗൂഗിൾ ഗൂഗിൾ പേയിൽ വരുന്നതാണ് നല്ലത് അപ്പോൾ ഗൂഗിൾ പേയിൽ എനിക്ക് ആ പൈസ അഞ്ഞൂറ് രൂപ നിങ്ങളെത്രയും പെട്ടെന്ന് തന്നെ അയച്ചു തരണം കാര്യം ഞാൻ റദ്ദാക്കിയതാണ് എനിക്ക് ഇനി ആ യാത്രകൊണ്ട് ആവശ്യമില്ല അപ്പം യാത്ര പോകുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ആ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ അയച്ചു തന്നത് ഇപ്പം യാത്ര പോകാത്ത സ്ഥിതിക്ക് നിങ്ങൾ ആ ഞാൻ അയച്ചു തന്ന അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ വഴി തന്നെ നിങ്ങളെനിക്ക് തിരിച്ചയച്ചു തരണം എൻ്റെ നമ്പറിൽ നിങ്ങൾ എനിക്ക് തിരിച്ചയച്ച് എത്രയും പെട്ടെന്ന് തന്നെ തരണം എന്ന് ഞാൻ പറയുന്നു കാര്യം എനിക്കും വേറെ കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് നിങ്ങൾക്കും തിരക്കുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ പൈസ നിങ്ങൾ തിരിച്ചു തരണം കേട്ടോ